ഹലോ ഞാൻ ഹേ അങ്കമാലിയിൽ നിന്ന് വർഗീസാണ് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ അ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാനാണ് മറ്റന്നാള് അഞ്ച് വെളുപ്പിന് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടില് നമുക്ക് പോകേണ്ടത് നിങ്ങൾ അപ്പോൾ അ അഞ്ചുമണിക്ക് ഇവിടുന്ന് പോകാനായിട്ട് നിങ്ങൾ ഹേ അ രണ്ട് മണിക്കൂർ നേരത്തെ അവിടുന്നു ഇറങ്ങണം കാരണം അങ്കമാലിയിലൊക്കെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കൊണ്ട് നേരത്തെയിറങ്ങി എനിക്ക് അഞ്ചുമണിക്കുള്ള ഫ്ലൈറ്റിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിലെത്തണം അത് കണക്കാക്കി വേണം നിങ്ങൾ വരാനായിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ലേറ്റായി എസ്ക്യൂസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഉത്തരവാദിത്തം നിറവേറ്റണം അത് സാധ്യമല്ലായെങ്കിൽ എത്രെയും വേഗം എന്നെ അറിയിക്കുക